ൻ്റെ ജീവിതകാലത്ത് സംഭവിച്ച പ്രധാന ഒരു സാങ്കേതികവിദ്യ മാറ്റമെന്ന് പറയുന്നത് മൊബൈൽ ഫോണിൻ്റെ മാറ്റമാണ് എന്തെന്നുവെച്ചാൽ സാധാരണ മൊബൈൽ ഫോണുകളിൽ നിന്നും സ്മാർട്ട് ഫോണുകളിലേക്ക് ഉള്ള മാറ്റമാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഉണ്ടായ സാങ്കേതിക വിദ്യയിലുള്ള പ്രധാനപ്പെട്ട മാറ്റം ഇത് ഒരുപാട് രീതിയില് നമ്മുടെ ജീവിതത്തില് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഈ സ്മാർട്ട് ഫോണിൻ്റെ വരവ് കാരണം നമ്മൾ നേരിട്ട് പോയി ചെയ്യേണ്ട പല കാര്യങ്ങളും സ്മാർട്ട് ഫോണിലൂടെ വീട്ടിലിരുന്നു തന്നെ ചെയ്യേണ്ട ഒരു ഘട്ടം തന്നെ ഉണ്ടായിട്ടുണ്ട് എന്ത് കാര്യങ്ങളാണെങ്കിലും നമുക്ക് സ്മാർട്ട് ഫോണിലൂടെ ചെയ്യാവുന്നതാണ് അതിലെ പ്രധാനപ്പെട്ട എന്തെന്ന് വെച്ചാൽ ആശയവിനിമയം ഒരാളുമായിട്ട് നേരിട്ട് ആശയ വിനിമയം നടത്തുവാനും എങ്ങനെ ഈ ശബ്ദത്തിലൂടെ ആശയവിനിമയം നടത്തുവാനും എന്തു കാര്യങ്ങൾ വേണമെങ്കിലും അയക്കുവാനും എല്ലാം സ്മാർട്ട് ഫോണിലൂടെ കഴിയും അതുപോലെതന്നെ ബാങ്കിംഗ് ബാങ്കിംഗ് മേഖലയും സ്മാർട്ട് ഫോണിലൂടെ വളരെ പ്രയോജനകരമായി ഉപയോഗിക്കാവുന്നതാണ് ഇത് നമ്മുടെ ജോലിയിലും പലതരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിപ്പിച്ചിട്ടുണ്ട് നമുക്കൊരു ജോലി സ്ഥലത്തുനിന്നും മറ്റൊരാളുമായി ആശയവിനിമയം നടത്താൻ സ്മാർട്ട് ഫോണിൻ്റെ ഉപയോഗം വളരെയധികം എളുപ്പം കൂടെ സംഭവിച്ച ഒന്ന് ഒന്നാണ് അതുപോലെതന്നെ ഒരാൾക്ക് ഡോക്യുമെന്റ് ഡോക്യുമെൻന്റ് ഒരു ജോലിസ്ഥലത്തുനിന്ന് അയച്ചുകൊടുക്കാനും എൽ വേണ്ട വിവരങ്ങൾ എല്ലാം കൈമാറുവാനും എല്ലാം സ്മാർട്ട് ഫോണിൻറെ വരവ് നമുക്ക് വളരെയധികം ഉപകാരപ്രദമാണ് അതുപോലെതന്നെ ഒരു വ്യക്തിയുമായിട്ട് മീറ്റിംഗ് ഗ്രൂപ്പ് ഗ്രൂപ്പുകളായി മീറ്റിംഗ് നടത്തുവാനും എല്ലാം സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് ചെയ്യാറുണ്ട് അതുപോലെതന്നെയാണ് ജോലിസംബന്ധമായ പണത്തിൻ്റെ ഇടപാടുകൾ എല്ലാം എളുപ്പത്തിൽ നമുക്ക് സ്മാർട്ട്ഫോൺ ഉപയോഗിച്ച് ചെയ്യാവുന്ന ഒന്നാണ് അങ്ങനെ സ്മാ ഈ സ്മാർട്ട്ഫോണിൻ്റെ വരവ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുതന്നെ പറയാം